ആ വരു വരു

നിധിൻ ഇത് കെമിക്കലൊന്നും ഇടാത്തതാണ് ഈ കെമിക്കലൊന്നും ചേർക്കാത്താണ് ഒരുപാട് നേരം ഇരിക്കും വർഷങ്ങളിലിരിക്കും ആ നല്ല ഓയിലാണ് ഇവിടെ തന്നെ ആട്ടി കൊ ആട്ടീട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അതില് നമ്മള് തന്നെയത് ആട്ടി കെമിക്കലൊന്നും ഇടാണ്ട് പ്രത്യേകം എടുത്ത് വയ്ക്കുന്നതാണ് ചിപ്പ്സുണ്ടാക്കാം മിച്ചറുണ്ടാക്കാം പച്ച തേങ്ങ നമ്മള് വെട്ടി മിഷനേൽ വെച്ച് ഉണക്കി നല്ല ഒണക്കും ആയേണ്ട ശേഷം ആട്ടി അതിനെ മിഷനെ തന്നെ അരിച്ചെടുത്ത് അങ്ങനന്നെ എടുത്ത് വയ്ക്കുന്നത് അതില് കെമിക്കലൊന്നും ചേർക്കുന്നില്ല നമ്മള് കടേൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കെമിക്കലുണ്ടാവും ഇത് കെമിക്കലൊന്നും ഇല്ലാത്തതാണ് കുറെ ഇരിക്കും പിന്നേ കുട്ടികൾക്ക് തേയ്ക്കാനും

ഒന്നും ഉണ്ടാവില്ല പിന്നെ നമുക്കിത് മിച്ചറ് ചിപ്സ് ഒക്കെ ഉണ്ടാക്കാം കേടുകൂടാണ്ടിരിക്കും ചുക്ക് മണവടിക്കുക അതൊന്നുമില്ല അഞ്ചേൽ ഇല്ല ഇല്ലില്ല ഇല്ലിലില്ല അങ്ങനൊന്നും ഇല്ല എല്ലാവർക്കും ഉപയോഗിക്കാം നമ്മള് സാധാരണ എണ്ണയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കുറെ ഇരുന്ന് കഴിഞ്ഞാൽ മണവടിക്കും ഇതതൊന്നും ഇല്ല കെമിക്കല് ചേർക്കാത്തത് കൊണ്ട് നല്ലതാണ് ഇല്ലിലില്ല ഇത് കേട് വരുവൊന്നും ഇല്ല കാരണം അത് കെമിക്കല് ചേർക്കുമ്പോഴാണ് കേട് വന്ന് പോണത് ഇത് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് കേട് വന്ന് പോവില്ല

ഇത് ഒരു ഒന്നര കൊല്ലം നിക്കും ഇതൊന്നും ഇട്ട് വെക്കണ്ട

അതെ അതെ കേക്കുണ്ടാക്കാനും നമ്മള് കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും പിന്നെ നമ്മള് ചിപ്സ് മിച്ചറ് അങ്ങനെയൊള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടീട്ട് ഇത് തന്നെയാണ് എല്ലാരും ഇവിടുന്ന് തന്നെയാണ് എല്ലാവരും വാങ്ങിച്ചോണ്ട് പോകുന്നത് കമ്പനികളിലേക്ക് വാങ്ങിച്ചു കൊണ്ട് പോകുന്നത് ഇവിടുന്ന് തന്നെയാണ് കാരണം വേറെ എണ്ണയിലൊക്കെ കേട് വരുന്നു എന്നൊരഭിപ്രായം വന്നില്ലേ പുറത്തിപ്പോൾ വേണമെന്നാണ് ആൾക്കാര് ആ ഇവിടൊണ്ട് ഉണ്ട് പത്ത് ലിറ്ററുണ്ട് കടയില് വെച്ചിട്ട് കുറച്ച് കൂടുതൽ തന്നെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു ലിറ്ററ് വേണ്ട ക്യാന് ക്യാന് ഞങ്ങള് ഇവിടെ ക്യാന് ഒരുമിച്ച് ഇറക്കുവാണ് ക്യാനും ഇവടെ തന്നെയുണ്ട് എന്നാൽ ഇപ്പോൾ പാത്രം ആ ശരി തരാം ഒര് മിനിറ്റ് ഇപ്പോൾ തന്നെ ആട്ടി തരാം